നിങ്ങൾക്കിഷ്ടമുള്ള പത്രമല്ല മറ്റേതെങ്കിലും പത്രം വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണു രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതു രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് എനിക്കിഷ്ടമുള്ള പത്രമാണ് മലയാള മനോരമ ഞാൻ മലയാള മനോരമ പത്രമാണു കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ മറ്റൊരു പത്രം വായിച്ചുനോക്കിയിട്ടുണ്ടോ എന്നു ചോദിച്ചുകഴിഞ്ഞാൽ ഉണ്ട് ഒന്നുരണ്ടു പ്രാവശ്യം ദേശാഭിമാനി ഒന്നു വായിച്ചുനോക്കിയിട്ടുണ്ട് ഇതു രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നു ചോദിച്ചുകഴിഞ്ഞാൽ മലയാള മനോരമയ്ക്കകത്ത് നമ്മുടെ കേരളത്തില് നടക്കുന്ന എല്ലാ വിവരങ്ങളും വളരെ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് എഴുതി വിടുന്നുണ്ട് എല്ലാം ഒന്നിട വിടാതെ എല്ലാ പേജിലും വളരെ വൃത്തിയായിട്ടുണ്ട് സത്യസന്ധമായിട്ടാണ് അവര് മലയാള മനോരമക്കാര് പത്രം വാർത്തകള് കൊടുക്കുന്നത് പക്ഷെ ദേശാഭിമാനിയുടെ പത്രം ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട് വായിച്ചത് തുറക്കുന്നതു തൊട്ട് പാർട്ടിക്കാരുടെ കാര്യങ്ങള് മാത്രവും പാർട്ടി പ്രവർത്തനവും പാർട്ടിക്കാരുടെ കാര്യങ്ങളും മാത്രവും മറ്റു പാർട്ടിക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളല്ലാതെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നതു സംബന്ധിച്ചതോ അല്ലെങ്കിൽ മരണം അല്ലെങ്കില് എന്തെങ്കിലും അപകടങ്ങൾ നടന്നതിനെപ്പറ്റിയൊന്നും ഒരു വാർത്തയും ദേശാഭിമാനി പത്രത്തില് എനിക്കു കാണാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് മംഗളം മനോരമ പത്രത്തിൻ്റെ പേജുകൾക്കതൊരു ഒരു വൃത്തിയുണ്ട് ഒരു അച്ചടക്കത്തോടെയാണ് മലയാള മനോരമ പത്രത്തിൻ്റെ പേജുകൾ കണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു പത്രം മംഗളം മംഗളത്തിൻ്റെ പേജിനൊന്നും ഒരു കട്ടിയില്ലാതെ വളരെ ഒരു

പിന്നെ ദേശാഭിമാനിക്കകത്ത് പാർട്ടി അധിഷ്ഠിത കാര്യങ്ങളല്ലാതെ വേറൊന്നും പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല മലയാള മനോരമയ്ക്കകത്ത് എല്ലാ വാർത്തകളും കേരളത്തിലെ എന്ത് ഇൻസിഡന്റ് നടന്നുകഴിഞ്ഞാലും അത് വളരെ സത്യസന്ധമായിട്ടും അതിന്റകത്തൊരു തെറ്റുകളോ കുറ്റങ്ങളോ വരുത്താതെ അതിൻ്റെ വാർത്തകള് വാർത്തകളായിട്ടു തന്നെ വളരെ കൃത്യമായിട്ടു പറയുന്നുണ്ട് പക്ഷേ ദേശാഭിമാനിക്കകത്ത് വാർത്തകള് വളച്ചൊടിച്ച് ഒരു വാർത്ത വന്നുകഴിഞ്ഞാൽ ആ വാർത്തേനെ വളച്ചൊടിച്ച് പറയുന്നതായിട്ടാണ് എനിക്കു മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്

അതിന് ഉദാഹരണമാണ് ഇപ്പോള് കേരളത്തിലൊരു കൊലപാതകം കുറച്ചുനാളിനുമുന്പ്

കൊലപാതകമാണ് രാഷ്ട്രീയ കൊലപാതകമാണ് മനോരമക്കാര് വളരെ വ്യക്തമായിട്ട് അതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നു പറഞ്ഞപ്പോൾ ദേശാഭിമാനിയിലത് രാഷ്ട്രീയ കൊലപാതകമല്ല അത് അങ്ങനെ സംഭവിച്ചതാണ് ഇങ്ങനെ സംഭവിച്ചതാണ് അവര് അതിനെ എന്തോരം ന്യായീകരിക്കാമോ അത്രയും ന്യായീകരിച്ചതൊരു രാഷ്ട്രീയ കൊലപാതകമല്ലാത്ത രീതിയില് അതിനെ ആക്കിത്തീർക്കുന്നതു ഞാൻ കണ്ടിരുന്നു അതാണ് ഞാൻ എനിക്കിഷ്ടമുള്ള പത്രവും ഇഷ്ടമില്ലാത്ത പത്രവും തമ്മിലുള്ളൊരു വ്യത്യാസമായിട്ട് എനിക്കു മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെതന്നെ ഇപ്പോള് ലഹരി നമ്മുടെ ഇടയില് ഇന്നു വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നൊരു പ്രവർത്തനമാണ് ലഹരി ഈ ഈ ലഹരിക്കെതിരെ വളരെ ഇപ്പോള് ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കേരളത്തില് വളരെ കൂടുതലാണ് ക്യാമ്പസുകളിലെ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണെന്നൊക്കെ വളരെ കൃത്യമായിട്ടും ഉദാഹരണ സഹിതങ്ങളും അതിപ്പോള് ഫോട്ടോ ഉൾപ്പെടെ നമ്മള് ഇഷ്ടപ്പെടുന്ന മനോരമ പത്രത്തില് വരുമ്പോൾ ഇതൊന്നുമില്ലാതെ ലഹരി എന്നു പറയുന്നത് കേരളത്തിലിന്നില്ല എന്നുള്ള രീതിക്കാണ് എനിക്കിഷ്ടമില്ലാത്ത പത്രങ്ങളിലൊക്കെ വരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ സാധിക്കപ്പെട്ടത് അതുകൊണ്ടുതന്നെ എനിക്കിഷ്ടമുള്ള പത്രം മനോരമ ഇപ്പോഴാ പത്രം തന്നെയാണ് അതിന്റെയകത്തു വാർത്തകളെല്ലാം വളരെ സത്യസന്ധമാണ് ഇതു തന്നെയാണു വളരെ സത്യസന്ധമായ വാർത്തയാണ് നമുക്കിഷ്ടമുള്ള പത്രത്തിൽ വരുന്നത് എന്ന് വളരെ വളച്ചൊടിച്ച കാര്യങ്ങളാണ് അല്ല മറ്റു പത്രങ്ങളിൽ വരുന്നത് എന്നാണ് എൻ്റെ ഒരഭിപ്രായം